എൻ്റെ ജോലിയെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ ജോലിയിലൊക്കെ പങ്കെടുക്കണം വലിയ വലിയ ജോലി ചെയ്യണമെന്നൊന്നുമില്ല ഉള്ള ജോലി സമാധാനത്തോടെ ചെയ്യണം രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിലുള്ള ജോലി ആയിരിക്കണം പക്ഷേ സ്റ്റേബിളാവുന്ന ജോലി ആയിരിക്കണം എന്ന് വച്ചിട്ട് അടിമപ്പണി എടുക്കാനൊന്നും പറ്റില്ല നല്ല സ്റ്റേബിളായിരിക്കണം എന്നെക്കൊണ്ട് ജോലിയിലിരുന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള ജോലി സന്തോഷത്തോടെ കിട്ടുന്ന സമയം വൃത്തിക്ക് ചെയ്ത് അത് തീർത്ത് ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം പിന്നെ എനിക്ക് ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് വേറെ കോഴ്സുകൾ പഠിക്കാനുമൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നടത്തണം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജോലി ജോലിയുടെ അല്ലെങ്കിൽ ഭാവി അങ്ങനെ കൊണ്ടു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഇന്സെന്റീവ്സ് കൂട്ടുക എൻ്റെ ടൈമിങ്ങിലേ അല്ലെങ്കിൽ എൻ്റെ പ്രമോഷൻ എനിക്ക് പ്രമോഷൻ താല്പര്യമുണ്ട് അപ്പോൾ പ്രമോഷൻ കിട്ടിയിട്ട് ഞാൻ ഒരു പി എച്ച് ഡി എടുക്കണം എന്നുണ്ട് അതാണിപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ആഗ്രഹം എന്നു പറയുന്നത്